ആ എടാ വല്ലതും അറിഞ്ഞോ നീ കളിയൊന്നും കണ്ടില്ലേ

കേരളത്തിൻ്റെ കളി പഞ്ചാബുവായിട്ടുള്ളത് ആ പിന്നല്ല എൻ്റെ മോനെ സീനല്ലായിരുന്നോ രണ്ട് റെഡ് കാർഡ് കിട്ടിയിട്ടും അവന്മാർ ജയിച്ച് ആ സെക്കൻഡ് ഹാഫില് ആദ്യത്തെ റെഡ് കാർഡ് ആ അത് തന്നെ സീനല്ലായിരുന്നോ കോച്ച് മാറിയപ്പോൾ കളി മാറിയത് കണ്ടില്ലേ കോച്ച് മാറിയപ്പോൾ കളി മാറിയത് കണ്ടില്ലേ അതെ അതെ ഈസി കളിയല്ലായിരുന്നോ പക്ഷെ നമ്മുടെ ഇവാൻ്റ അത്രയും ആരും ഒക്കത്തില്ലടാ ഇവാൻ്റെയൊക്കെ ഫസ്റ്റ് സീസൺ ഓർക്കുന്നുണ്ടോ ഇവാരോയും ഡയസും ഓഹ് മാസ് അല്ലായിരുന്നോ ആകെ നമുക്ക് ആ ലൂണയും എൻ്റെ മോനെ ലൂണയൊക്കെ എന്നാ ഫോമായിരുന്നു നല്ല ഫ്രീ കിക്ക് ഗോളും പിന്നെന്താ ധാരാളം ലോങ്ങ് റേഞ്ചും ഉഫ് മാസ് അല്ലായിരുന്നോ അതാരും അത് അതായിരുന്നു സീസൺ ആ സീസണിലൊന്നും വേറെ ഏഴയലത്തെത്തത്തില്ല എങ്കിലും കുഴപ്പമില്ല കളി അതെ അതെ മ്മ് ഒലിവാൻ തിരിച്ചു വരുവായിരുന്നേൽ കൊള്ളാമായിരുന്നല്ലേ

ആ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഓ മനസ്സിലായി ഡാ മറ്റേ ആ ആ സെമി ഫൈനലിൽ നീ ഫൈനൽ കണ്ടില്ലായിരുന്നോ ഫിഫായുടെ ആ ക്വാട്ടർ ഫൈനൽ നീ ഫൈനൽ കണ്ടില്ലായിരുന്നോ ഫിഫായുടെ മ്മ്

നീ ഏതാ ടീം ഏതായിരുന്നു അർജൻറ്റീനയല്ലെ അയ്യോ മറ്റേ എമുരാനോ മാർട്ടിൻ അവസാനത്തെ സേവ് നടത്തിയില്ലായിരുന്നേൽ മോനെ നമ്മൾ തീർന്നേനെ ഏത് ആ ആ മ്മ് മ്മ് ആ അതെ അതെ ആ ഉറപ്പല്ലേ കപ്പ് നമ്മുടെ ഫ്രാൻസിൽ ഇരുന്നേനെ പിന്നല്ല നിറയേ വേറെ

പിന്നെ നീ എന്താ എടാ നേരിട്ട് പോയി കളി കാണണ്ടേ നമുക്ക് ഈ കൊച്ചിയിൽ കൊച്ചിയിൽ പോയി പിന്നെ അല്ല ഞാൻ അടുത്താഴ്ച്ച എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത പതിമൂന്നിനുണ്ട് ഒഡീഷയായിട്ട് ആ കൊച്ചിയിൽ അതുതന്നെ ഒഡീഷയായിട്ട് കൊച്ചിയിൽ പതിമൂന്നാം തീയതി കളിയുണ്ട് പിന്നെ സീറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്തന്നേ പിന്നെ നമുക്ക് രണ്ടുപേർക്കും നമുക്ക് രണ്ടുപേർക്കും പോരെ

വേറെ ആരെയെങ്കിലും കൊണ്ട് വരണോ വേണോ ഓക്കെ എടാ ശരി എന്നാൽ